താങ്കൾ ടീച്ചറായതിൽ താങ്കളഭിമാനിക്കുന്നുണ്ടൊ ഇല്ലയൊ അഭിമാനിക്കുന്നുണ്ട് ഞാൻ വളരെയധികം അഭിരാ അഭിമാനിക്കുന്നൊരു പ്രൊഫഷനാണ് ടീച്ചറെന്നു പറയുന്നത് കാരണം കുരുന്നുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അതുമുഖാന്തരം അവരെ നല്ലൊരു സമൂഹത്തിൽ മുതിർന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു അതുപോലെതന്നെ പല പല സാഹചര്യങ്ങളിലും നമ്മൾ സൊ പഠിച്ചു കഴിയുമ്പോഴൊക്കെ അതായത് നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞ് അവൻ വളർന്നു വലുതായി നല്ലൊരുദ്യോഗസ്ഥനായി തീർന്നിരുന്നാലും നമ്മൾ ചെല്ലുമ്പോൾ ആ ടീച്ചറെന്നുള്ള ആ ഒരു പദവിയിൽ നിന്നു കൊണ്ട് ആ കുഞ്ഞുങ്ങളോടി വരികയും അവർ നമ്മളോടു കാണിക്കുന്ന പെരുമാറ്റവും എല്ലാം കണ്ടുകഴിയുമ്പോൾ ഇതുപോലൊരു ആത്മസംതൃപ്തിയുള്ള ഒരു പ്രൊഫഷൺ വേറൊന്നുമില്ലെന്നു ഞാൻ തീർത്തും ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഏതു മേഖലയിൽ ചെന്നിരുന്നാലും നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് കഴിയും അത് ഒരു വലിയൊരു ആത്മസംതൃപ്തിയുള്ള ഒരു നിമിഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു കുഞ്ഞുപോലും നശിക്കാതെ ഒരു കുഞ്ഞുപോലും ഇത് കഞ്ചാവിനൊ മയക്കുമരുന്നിനൊ അടിമപ്പെടാതെ അവരെ നല്ലരീതിയിൽ പോറ്റി വളർത്തി അവർക്കടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്ത് അവർ ക്ക് ഏതിലാണൊ ഏതു വിഷയത്തിലാണൊ അവർ പിന്നോക്കം നിൽക്കുന്നത് ആ വിഷയത്തിന് മുൻതൂക്കം കൊടുത്ത് പഠിപ്പിച്ച് അവരെ ഒരു നല്ല നിലയിലെത്തി കാണുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി ഒരിക്കലും നമുക്ക് മരിച്ചാൽ പോലും ആ സംതൃപ്തിയിൽ നിന്ന് നമുക്ക് പിന്മാറാനായിട്ടു സാധിക്കുകയില്ല